വളർത്ത് മൃഗങ്ങളെ വളർത്തുവാണെങ്കിലും പൈസ ഉണ്ടാക്കാൻ ആട് കോഴി പശു എന്നിങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ ഒരു അത് ആടിനെ ഒരാടിനെ മേടിച്ചാൽ ഒരു അത് രണ്ട് ആറ് ഒരു വർഷം കൊണ്ടതിനെ മൂന്നും നാലും ആടുകളാവും അതിനെ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് പൈസയുണ്ടാക്കാം പശു ആണെങ്കിലും ഇപ്പോൾ ക്ഷീര കർഷകരെ ഒക്കെ സംബന്ധിച്ചിടത്തോളം നല്ല വരുമാനമാണ് അവർക്ക് ശകലം ബുദ്ധിമുട്ടുണ്ട് റിസ്ക് എടുക്കണം ഇതൊക്കെയാണ് പശുവിനെ വളർത്തുക ആടിനെ വളർത്തുക കോഴിയെ വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒരാൾ മെനക്കെട്ട് അതിനെ നോക്കി പുല്ലും വെള്ളവും കൊടുത്ത് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാം നമ്മൾ വെറുതെ ഒന്നിനെ മേടിച്ച് കൊണ്ട് കെട്ടിയിട്ടിട്ട് കാര്യമില്ല അതിനായിട്ട് നമ്മൾ മെനക്കെടണം നോക്കണം പശു ആണെങ്കിലും ആട് ആണെങ്കിലും ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ട് കോഴി ഉണ്ട് ആട് ഉണ്ട് പക്ഷേ അതിനകത്തൊന്നും വലിയ നമ്മൾ പരമാവധി നോക്കുന്നുണ്ട് അത്യാവശ്യം വരുമാനം ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇതൊരു നല്ലൊരു കൃഷി രീതിയാണത് അത് മൃഗങ്ങളെ വളർത്തുക അതിനകത്തുനിന്ന് നമ്മൾ ഉൽപാദിപ്പിക്കുന്നത് നമുക്ക് മറ്റൊരാളുടെ ഒരു ഇത് റിസ്ക് ഒന്നും വേണ്ട നമുക്ക് സ്വന്തം ബുദ്ധിമുട്ടിയാൽ സ്വന്തമായിട്ട് നമുക്ക് അതിനകത്തുനിന്ന് വരുമാനം എടുക്കാൻ നമ്മുടെ പാൽ ആയാലും മോര് ആയാലും ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം അതൊക്കെ ഒരു നല്ലൊരു ചെറിയൊരു പൈസ ആണെങ്കിലും വലിയൊരു വരുമാനമായിട്ടൊരു ഇതാകുമ്പോഴത്തേക്കും ഒരു തീരും അത് ഇത് ബാംഗ്ലൂർ നല്ല വരുമാന മാർഗ്ഗം തന്നെയാണ് വളർത്തു മൃഗങ്ങൾ വഴി എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് നമ്മൾ ഒത്തിരി കണ്ടമാനം കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് വളർത്തു മൃഗങ്ങൾ നമ്മുടെ അയൽവക്കത്തൊക്കെ തന്നെ വളർത്തു മൃഗങ്ങൾ മാത്രമായിട്ടൊരു ജീവിക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടം മാതിരി വരുമാനം ഉണ്ട് ആട് വളർത്തിയും പശു വളർത്തി കോഴി വളത്തി നല്ലൊരു വരുമാന മാർഗ്ഗം തന്നെയാണ് ആട് വളർത്തും പശു വളർത്തും ഒക്കെ എനിക്ക് നല്ലൊരു ഇഷ്ടം ഉള്ള കാര്യമാണ് നമ്മൾ സമയം പോലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒത്തിരി ഇല്ലെങ്കിലും കുറച്ചൊക്കെ